പുരുഷന്മാർ ക്ലാസിക്കൽ നൃത്തം പഠിക്കുന്നതിനെക്കുറിച്ച് നല്ല വളരെ നല്ല അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും ഇക്വാലിറ്റി ഉണ്ട് സമത്വം ഉണ്ട് സ്ത്രീകളോട് ഒപ്പം തന്നെ പുരുഷന്മാരും നൃത്തം പഠിക്കുന്നത് ഒട്ടും തെറ്റില്ലാത്തൊരു ഇത് തന്നെയാണ് എല്ലാ മേഖലകളിലുമിപ്പോൾ സ്ത്രീകൾ ഇതാവുന്നുണ്ട് അപ്പം നൃത്തം എന്നത് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല തീർച്ചയായും അത് പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് ഒരിക്കലും പുരുഷന്മാർ ചെയ്യാൻ പറ്റിയ ഒരു മേഖലയല്ല നൃത്തം എന്ന് തോന്നിട്ടേയില്ല ഇപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഒട്ടുമിക്കതും സ്ത്രീകളെ കഴിഞ്ഞ് നന്നായിട്ട് പുരുഷന്മാർ ഓരോ റീൽസ് ഷോട്സും ചെയ്തിടുന്നുണ്ട് അപ്പം വളരെ ഭംഗിയായിട്ട് അത് കാണുമ്പോൾ തന്നെ സ്ത്രീകൾ ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ചെയ്യുന്നതിനെക്കഴിഞ്ഞ് നല്ലരീതിയിൽ ആൺകുട്ടികൾ തന്നെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ വളരെ പ്രശംസ അർഹിക്കുന്നൊരു കാര്യം തന്നെയാണ് അവർ അതുപോലെത്തന്നെ ക്ലാസിക്കൽ നൃത്തം ആയാലും ഇപ്പോൾത്തന്നെ സിനിമ നടൻ വിനീത് ക്ലാസിക്കൽ നൃത്ത അഭിനയ അഭിനയിക്കും അത് അവതരിപ്പിക്കുമ്പോൾ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അത് വളരെ നല്ലരീതിയിൽ ആസ്വദിക്കുന്ന ഒരു സമൂഹം നമ്മുടെയിടയിൽത്തന്നെയുണ്ട് അതുപോലെ ഒരുദാഹരണം പറയുകയാണെങ്കിൽ ആർ എൽ ബി രാമകൃഷണൻ അദ്ദേഹവും ഭാരതനാട്യവും ഭരതനാട്യത്തിന് പി എച്ച ഡി വരെ എടുത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അവരൊക്കെ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ വളരെ ഇത് വളരെ നല്ലരീതിയിൽ അവർ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാടൊരു സ്ത്രീ എന്ന നിലയിൽ അത് നല്ല രീതിയിൽ ആസ്വദിക്കുന്നുമുണ്ട് അപ്പോൾ പുരുഷന്മാർ ഈ രംഗത്ത് വരുന്നതിന് ഒരു ഒരു അഭിപ്രായവ്യത്യാസവും ഇതുവരെയും തോന്നിയിട്ടില്ല ഞാൻ വളരെ നല്ലരീതിയിൽത്തന്നെ എന്താണ് പെൺകുട്ടികളെ പെൺകുട്ടികളെ കഴിഞ്ഞും നല്ല രീതിയിൽ അവർ നല്ല ഡെഡിക്കേഷനോടുകൂടെ അവരെ പാഷനോടുകൂടെ അവർ നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട് അതെ അവർ കാണുമ്പോൾ തന്നെ ഒരു എന്താണ് ഒരു ഒരു എന്താ ഒരു സന്തോഷവും ഒരു അത്ഭുദവും അഭിമാനവുമൊക്കെ തോന്നുന്നുണ്ട് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ പെൺകുട്ടികൾ ചെയ്യുന്ന ആ മാനറിസങ്ങളെല്ലാം അവരുടേതായ രീതിയിൽ അവർ അത് നന്നായിട്ട് നല്ല രീതിയിൽ അവരെ കഴിഞ്ഞും മികച്ചതായിട്ട് പുരുഷന്മാരും ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഒരു സന്തോഷവും തോന്നാറുണ്ട് ഒരു രീതിയിലും തന്നെ പുരുഷന്മാർ ക്ലാസിക്കൽ നൃത്തം പഠിക്കുന്നതിനെക്കുറിച്ച് ഒരഭിപ്രായവുമില്ല അവർ പഠിക്കണം കുട്ടികൾ ആൺകുട്ടികൾ ക്ലാസിക്കൽ നൃത്തം പഠിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അവരും പഠിക്കണം അവരും എന്തോന്നാണ് അവരും ക്ലാസിക്കൽ നൃത്തവും വെസ്റ്റേണും എല്ലാം ചെയ്യണമെന്നുതന്നെയാണ് അഭിപ്രായം അതുമല്ല ഇപ്പോഴത്തെ കുട്ടികൾ നന്നായിട്ട് വളരെനല്ല രീതിയിൽ അത് ചെയ്യുന്നുമുണ്ട് ഒരുപക്ഷെ പെൺകുട്ടികളെ കഴിഞ്ഞും നല്ലരീതിയിൽ അവർക്ക് അവരുടേതായ കഴിവുകൾ തീർത്ത് പ്രദർശിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് നമ്മുടെ സ്കൂൾ കലോത്സവം അങ്ങനെ ഒക്കെയുള്ളതും പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരുപാട് പേര് ആൺകുട്ടികള് ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരുപാട് പേരുമുണ്ട് നമ്മുടെ പ്രദേശത്ത് തുടർന്ന് പോവുന്നുമുണ്ട്